സാർ എൻ്റെ പേര് ആതിര എന്നാണ് ഞാൻ പറവൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കുട്ടിയുടെ ജനനരേഖയിലെ പേര് തെറ്റായി എഴുതിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അത് തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെയിൽ അയക്കുന്നത് എൻ്റെ കുട്ടിയുടെ ജനനരേഖയിലെ തെറ്റായ പേര് നിഹാരിക കെ ദിലീപൻ എന്നാണ് എന്നാൽ അവളുടെ യഥാർത്ഥനാമം നിഹാരിക കെ ദിലീപ് എന്നാണ് ആയതുകൊണ്ട് നിഹാരി കെ ദിലീപൻ എന്ന തെറ്റായ നാമം തിരുത്തി അവളുടെ ജനനരേഖയിൽ നിഹാരിക കെ ദിലീപ് എന്നാക്കിത്തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്